ഇപ്പോൾ വ്യത്യസ്ത കലാരൂപങ്ങളില് പരിശീലനമോ വിദ്യാഭ്യാസമോ ലഭിച്ച ഇഷ്ടം പോലെ ആൾക്കാര് നമ്മുടെ ഇവിടെ തന്നെയുണ്ട് അങ്ങനെ പലതരം ആർട്ട്സ് കോളേജ് അങ്ങനത്തെ കോളേജുകൾ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയില് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ രാ രവിവർമ്മ രാജാരവിവർമ്മ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അങ്ങനത്തെ കോളേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നല്ല രീതിയിലുള്ള കരാ കലാരൂപങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കോളേജ് ആണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയില് അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കോളേജ് അങ്ങനത്തെ പലതരം കോളേജുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതായത് കമ്മ്യൂണിക്കേഷൻ ചങ്ങനാശ്ശേരി കേരളം അങ്ങനത്തെ ഒരു കോളേജ് ഉണ്ടവിടെ അതായത് സെൻറ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിലുള്ള ഒരു കോളേജ് ആണ് അപ്പം ആ കോളേജില് നമുക്ക് പലതരം കലാരൂപങ്ങളും ആർട്സ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലായിട്ടും പഠിപ്പിക്കുന്ന ഒരു കോളേജാണ് പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് തിരുവനന്തപുരം കോളേജ് കേരള യൂണിവേഴ്സിറ്റി അതായത് അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള പഠനം കാഴ്ചവയ്ക്കുന്നവർക്ക് നല്ല രീതിയില് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കോളേജുണ്ട് അത് തിരുവനന്തപുരത്താണ്